ഏപ്രിൽ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂൺ അഞ്ച് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച്